നമ്മുടെ സ്ഥലത്തിന്ന് അട് ഏറ്റവും അടുത്ത് സ്ഥിതി പിന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കോയിക്കൽ കൊട്ടാരം പിന്നെ അതുപോലെ തന്നെ ധാരാളം അമ്പലങ്ങളുണ്ട് പിന്നെ ഉള്ളത് പത്മനാഭ സ്വാമി ക്ഷേത്രമാണ് അതുപോലെ ശ്രീ നാരായണ ഗുരു ജനിച്ച ചെമ്പഴന്തി ചെമ്പഴന്തിയിൽ ഒരു ശിവക്ഷേത്രമുണ്ട് ശ്രീ നാരായണ നമ്മുടെ നവോത്ഥാന നായകനാണ് ശ്രീ നാരായണ ഗുരു എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് അവിടെ അതുപോലെ തന്നെ പിന്നെ പ പണ്ട് അദ്ദേഹം താമസിച്ചിരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ സൂക്ഷിച്ച് അതുപോലെ ഒരു കേടുപാട് സംഭവിക്കാതെ സൂക്ഷിച്ച് നിലനിർത്തി പോവുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് നമ്മുടെ ആറ്റുകാൽ ദേവീക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ആറ്റുകാൽ ദേവീക്ഷേത്രം അറിയപ്പെടുന്നത് എന്താ വിദേശത്തുന്ന് വരെ പിന്നെ ആൾക്കാർ വന്നാണ് അവിടെ ഉത്സവ സമയത്ത് പൊങ്കാലയാണ് വളരെ ഒരുപാട് ദൂരമാണ് അവിടത്തെ പൊങ്കാല ആൾക്കാർ അത്ര ഭയങ്കര തിരക്കാണ് അപ്പം അതുപോലെ തന്നെ ഏത് സമയത്ത് പോയിരുന്നാലും അവിടെ ഭയങ്കര ജനമാണ് പിന്നെ ഒരുപാട് ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ആൾക്കാർ ആ അമ്പലത്തിൽ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ആണ് അതിനടുത്തായിട്ട് പഴവങ്ങാടി ഗണപതി ക്ഷേത്രമുണ്ട് പിന്നെ ഇതുപോലെ പത്മനാഭ സ്വാമി ക്ഷേത്രം മഹാവിഷ്ണു പള്ളി കൊണ്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇതിന് അടുത്തായിട്ടാണ് കടൽ എന്നാണ് പറയപ്പടുന്നത് പിന്നെ ഉള്ളത് ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രമാണ് ഭയങ്കര തിരക്കാണവിടെ തിങ്കളാഴ്ച് ദിവസങ്ങളിലൊക്കെ ഒരുപാട് ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ആൾക്കാർ ശ്രീകണ്ഠേശ്വരത്ത് വരുന്നത് പിന്നെ അതുപോലെ തന്നെയാണ് പത്മനാഭ സ്വാമിക്ഷേത്രത്തിലും അങ്ങനെ തന്നെയാണ് പിന്നെ വിദേശികളൊക്കെയാണ് കൂടുതലും നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വരുന്നത് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് അതുപോലെ തന്നെ അത് പിന്നെ രാജ കുടുംബത്തിൻ്റെയൊക്കെ രാജ കുടുംബത്തിൻ്റെ അവിടെ ഉത്സവമൊക്കെ നടത്തുന്നത് രാജ കുടുംബത്തിൻ്റെ വകയായിട്ടൊക്കെയാണ് അവിടെ ഉത്സവങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെയാണ് ശ്രീകണ്ഠേശ്വരവും പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങളും കോട്ടകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ പിന്നെ തിരുവനന്തപുരം എന്ന് പറയുന്നത്